ആ എന്റെ കുടുംബ ജീവിതത്തിൻറെ ഉത്തരവാദിത്വങ്ങളോടൊപ്പം തന്നെ ഞാൻ തയ്ക്കാറുണ്ട് എൻറെ അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് അല്ലാതെയും ഞാൻ കൊറോണ ടൈമിൽ മാസ്കൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു ഒരു ഒരു സന്തോഷമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെ തയ്ച്ചെടുക്കാൻ ഒക്കെ നല്ലൊരു സന്തോഷമായിരുന്നു ഞാൻ പിന്നെ തയ്യൽ കണ്ടെത്തി തയ്യലിൽ ഇരുന്ന് എനിക്ക് എൻറെ അത്യാവശ്യ എൻറെ വസ്ത്രങ്ങളൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് നെ പിന്നെ കുഞ്ഞുങ്ങളുടെയും മക്കളുടെ ഒക്കെ അടിക്കേണ്ട സാധനങ്ങളൊക്കെ അടിക്കും പിന്നെ തയ്യൽ എനിക്കൊരു ഹരമുള്ള ഒരു ഇതാണ് അപ്പം ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ചില സമയങ്ങളിൽ സമയം കണ്ടെത്തി ഇച്ചിരിയൊക്കെ തയ്ക്കാറുണ്ട് പിന്നെ നെ തയ്യലിനു വേണ്ടിയിട്ടു മാത്രം ഞാൻ സമയം കണ്ടെത്താറില്ല എൻ്റേതു ബാക്കി സമയങ്ങളിൽ ഞാനതു ചെയ്യാറുണ്ടേ പിന്നെ ഞാൻ കൂടുതലായിട്ട് തയ്ച്ചതു കൊറോണാസ് തുടങ്ങിയ സമയത്ത് മാസ്ക്കൊന്നും അവൈലബിൾ അല്ലാതിരുന്ന സമയത്ത് ഞാൻ തുണികൾ എടുത്തു കൊണ്ടു വന്ന് അപ്പം എൻറെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പൈസയ്ക്ക് ഒക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാസ്കിൻറെ അളവിനു തുണി കട്ട് ചെയ്ത് എല്ലാവർക്കും തുണിയും ഇലാസ്റ്റിക്കും ചരടും ഒക്കെ വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുത്ത് അവരെയും കൊണ്ടു തയ്പ്പിച്ച് ആ തുണികൾ ആ മാസ്ക് അവർ ഇത്ര വീതം തയ്ച്ചു കൊണ്ടു തരും അപ്പോൾ ആ അതു ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ മാസ്ക് വാങ്ങി മെഡിക്കൽ സ്റ്റോറുകളിൽ അവർ വിറ്റിട്ടുണ്ട് അപ്പോൾ അതൊരു ഞങ്ങളുടെ പൈസക്കില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹോദരിമാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഇനി ഇത് എന്തൊരു സന്തോഷമായി എന്നു പറഞ്ഞു അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു മീന്നെ തുണി മാസ്ക് ഒക്കെ തയ്ക്കാൻ കിട്ടിയ അവസരം ഞാൻ അന്ന് അങ്ങനെയാണ് എനിക്ക് വീ വീട്ടിൽ ഒരു മഷീൻ ഉണ്ടായിരുന്നപ്പം തയ്യൽ മഷീൻ എൻറെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ തയ്യലിനെ പറ്റി ചിന്തിച്ചതെ ചിന്തിച്ച് ഞാൻ വൊയ് എല്ലാവർക്കും ഒരുതണ്ട് പഞ്ചേട്ട് പത്ത് പത്ത് പെൺ സ്ത്രീകളോളം വനിതകൾ ആ സമയത്ത് കുറച്ചു പൈസ ഉണ്ടാക്കി പിന്നെ ഓരോ ക്യാമ്പുകളിലും കിടക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ അവർക്കൊക്കെ ഓരോരുത്തരെയും ഞങ്ങളോട് ഓഡർ ചെയ്യുമായിരുന്നു ഇത്ര മാസ്ക് വീതം വേണമെന്ന് അപ്പം അവർക്കൊക്കെ മാസ്ക് തയ്ച്ചു കൈകളിൽ കൊടുത്തു അവർ കൊണ്ടുപോയി അപ്പം ഞങ്ങളുടെ നിവേദനം ഞങ്ങളുടെ തുണിയുടെയും തയ്ക്കാൻ ഞങ്ങൾ എടുത്ത ചിലവിനും ഉള്ള പൈസ ഞങ്ങൾക്കു തന്നു അപ്പം ഞങ്ങളത് ഉപയോഗിച്ചു മാസ്ക് തയ്ക്കാനും ഒക്കെയായിട്ട് ഞങ്ങളത് ഉപയോഗിച്ചു അങ്ങനെ ഒത്തിരി പേർക്ക് തൊഴിലവസരവും ആയി പിന്നെ എനിക്കതൊരു പ്രചോദനമായിരുന്നു അപ്പം പാ പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ട് അന്നു വേറെ ജോലി ഒന്നും ഇല്ലല്ലോ പൈസയ്ക്ക് ബുദ്ധിമുട്ടുമല്ലേ അപ്പം അവർക്കൊകെ ഇച്ചിരി പൈസ ഉണ്ടാക്കാനായിട്ട് ഞാനും കാരണമായപ്പം എനിക്കതൊരു ഒത്തിരി സന്തോഷം വ വന്നൊരു സമയമായിരുന്നു എ അതാണ് ഞാൻ മെയിൻ ആയിട്ട് തയ്ച്ചതു മാസ്ക് തന്നെയാണ് പിന്നീട് ഞാൻ ഏ നീ ഞങ്ങളുടെ പള്ളിയിലേക്കും ഓ പിന്നെ ഇതിനു മൈക്കിന് കവറൊക്കെ തയ്ച്ചു കൊടുത്തു പിന്നെ ഇതൊക്കൊക്കെ ഞാൻ തയ്യലിലൂടെ ചെയ്തിട്ടുള്ളൂ തയ്യൽ പക്ഷേ ഞാൻ മെയിൻ ആയിട്ട് കൂടുതൽ ചെയ്തത് മാസ്ക് തന്നെയാണ് ഒത്തിരി പേർക്ക് സന്തോഷമായിരുന്നു പല പല കളർ കളറുകളിലെ മാസ്കുകൾ ധരിച്ചു കൊണ്ടൊക്കെല്ലാവരും നടന്നായിരുന്നു ഡ്രസ്സിനു ചേരുന്ന തുണികളൊക്കെ എടുത്തു കൊണ്ട് തന്നു മാസ്ക് തയ്ച്ചു തരാമോ എന്നു ചോദിച്ചു പുതിയ നല്ല മൊ മുഖം മൊത്തം കവർ ചെയ്യുന്ന മാസ്കും തയ്ച്ചു പിന്നെ ഈ ലേസ് ഇട്ട് ഉള്ള ആ മാസ്കും തയ്ച്ചു ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കേ